ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് മലയാള ഭാഷാ മലയാള ഭാഷ തന്നാ കാണുന്നത് വാർത്ത കാണുന്നതെല്ലാം മലയാളഭാഷയിലാണ് ഒരു കാരണവശാലും വേറൊരു ലാംഗ്വേജിൽ ഞാൻ കാണാറില്ല ട്വൻ്റി ഫോർ ന്യൂസാണ് ഏറ്റവും കൂടുതൽ വെക്കാറുള്ളത് അതിലാണെനിക്ക് താത്പര്യം കാരണം അപ്പോൾത്തന്നെ നമുക്കപ്ഡേഷൻ ലൈവ് അപ്ഡേഷൻ നമുക്ക് പെട്ടെന്നു കിട്ടുന്ന ഒരു ചാനലാണ് ട്വൻ്റി ഫോർ പിന്നേ മ മറ്റു മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞതല്ല ഇഷ്ടപ്പെട്ടൊരു ചാനൽ അതായതു കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മാതൃഭാഷ മാത്രമേ ഞാൻ വാർത്തകളും എന്തു കാര്യങ്ങളും കാണാറുള്ളു എന്നുവെച്ച് ക്രിക്കറ്റ് മലയാളത്തിൽ കാണുമെന്നല്ല ഞാൻ പറഞ്ഞത് വാർത്തകൾ വരുമ്പം മലയാളഭാഷയെ കാണും നല്ല ഇതിൽ തന്നെ കാരണം അടുത്തിടുന്നതെന്നെ ടി വി ഓഫാക്കാതെ തന്നെ മറ്റേ ചാ ചാനൽ മാറ്റാതെ തന്നെ ട്വൻ്റി ഫോർ ശ്രീ കണ്ഠൻ നായർ സാറിൻ്റെ ചാനലായ ട്വൻ്റി ഫോറാണ് കാണാറുള്ളത് പിന്നെ ന അതു കാരണം വേറൊന്നും അല്ല ഏറ്റവും നല്ല വാർത്തകൾ വരുന്നതും നല്ല നല്ല കാര്യങ്ങളും പറയുന്നൊരു ചാനലാണത് പിന്നേ അതു നല്ലതാണപ്പോൾ വലിയ ഇംഗ്ലീഷ് പരമായിട്ടുള്ള സംസാരമൊന്നും ആ ചാനലിലില്ല മൊത്തം നല്ല മാദ്ധ്യമ മ മലയാളഭാഷ തന്നെയാണ് മൊത്തം അവർ പറയുന്നതും എല്ലാകാര്യങ്ങളും ചെയ്യുന്നതെല്ലാം നല്ല രീതിയിലാണ് അതിനകത്തൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ മറ്റ് മറ്റു ചാനലുകളും കൂടി കാണത്തില്ലയെന്നല്ലാ കാണുന്നുണ്ട് കാരണം ഇത് എപ്പോഴാന്ന് അറിയത്തില്ലല്ലോ ചില ചില വിഷയങ്ങളൊക്കെ ഇതൊക്കെ നടക്കുമ്പോൾ മാറ്റി മാറ്റിയെല്ലാം ചാനൽ നോക്കും പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ട്വൻ്റി ഫോർ ന്യൂസാണ് അതിൽ നല്ല നല്ല കാ കാര്യങ്ങളാണ് നടക്കുന്നതെല്ലാം ഇപ്പം എന്ത് എന്തു കാര്യമായാലും ക്രിക്കറ്റിൻ്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഇപ്പം ഇപ്പം നടക്കുന്ന അർജുനൻ്റെ അർജുനൻ്റെ കാര്യങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ ഞാൻ കാണുന്നുണ്ട് മലയാളഭാഷ വിട്ടിട്ട് കളി നമുക്കില്ല നമ്മൾ സംസാരിക്കുന്നതും മലയാളത്തിൽ തന്നെയാണ് പെറ്റമ്മയെ മറന്നൊരു കളി നമ്മളത് ചെയ്യത്തില്ല ഒരിക്കലും ആ ഭാഷ തന്നെയാണ് നല്ലരീതിയിൽ സംസാരിക്കാൻ പരമാവധി നോക്കുന്നത് ഇടയ്ക്കങ്ങനെ ആയാലും ഇംഗ്ലിഷ് വാക്കുകൾ വന്നു കയറി പോകും അത് ഇപ്പം ആരുടെയും കുറ്റമൊന്നുമല്ലാ അതു പറഞ്ഞിട്ടും കാര്യവും ഇല്ലാ എല്ലാവരും എൻ്റെ കാര്യവുമല്ലാ എല്ലാവരും നമ്മൾ കേരളത്തിൽ ജീവിക്കുവാണെങ്കിൽ മലയാളത്തിൽ തന്നെ സംസാരിച്ച് ജീവിക്കുക അതാണ് ഏറ്റവും നല്ലത് അതേ രീതിയിൽ തന്നെ ചാനലിലായാലും എന്തു കാണുന്നെങ്കിലും മാതൃഭാഷ തന്നെ കാണുകയും ചെയ്യണം ഒരു കാരണവശാലും വേറൊരു ലാംഗ്വേജ് നമ്മൾ എടുക്കാതിരിക്കാൻ നോക്കുക മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ നോക്കുക മലയാള ചാനൽ തന്നെ മലയാളവാർത്തകൾ തന്നെ കാണാനും ശ്രമിക്കുക അത് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അതേറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെ ഞാൻ ഇ കുറച്ചു മുമ്പു പറഞ്ഞ മ മറ്റു മാദ്ധ്യമങ്ങളെ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നതല്ലാ എൻ്റെ ഒരഭിപ്രായം വെച്ച് ഒരാൾക്കൊരിഷ്ടം ഉണ്ടല്ലോ ആ ഇഷ്ടമാണ് പറയുന്നത് ആ ഇഷ്ടത്തോടെയാണ് ഞാൻ പറഞ്ഞ് ട്വൻ്റി ഫോർ മാത്രമേ ഞാൻ കാണാറുള്ളു